ഞാൻ പൊതുവേ ഉപയോഗിക്കുന്ന ഗതാഗത രീതി ബസ് റോഡ് ഗതാഗത രീതിയാണ് അല്ലായിരുന്നെങ്കിൽ ബസ്സിലാണ് ഞാൻ പ്രധാനമായിട്ടും പോകാറുള്ള അതിനു ഉപയോഗിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ റെയിൽവേ സ്റ്റേഷനൊന്നും അടുത്തില്ല ചില ഗതാഗത സൗകര്യമില്ല റോഡ് മാർഗം തന്നെയാണ് ഞങ്ങള് ഒരു നാടിന് അനുയോജ്യമായിട്ടുള്ളത് അപ്പോ ഏറ്റവും പെട്ടെന്ന് അവൈലബിലായിട്ടുളള ഗതാഗതം എന്ന് പറയുന്നതും ഈ റോഡ് ഗതാഗതമാണ് അതിനായിട്ട് അവിസ്മരണീയമായിട്ടെന്ത് വെച്ചാല് എനിക്ക് വളരെ പേടിയുള്ള ഒരു ഗതാഗതമാണ് ഈ ബസ് പോലുള്ള വാഹനങ്ങള് പോകുമ്പം അവര് വളരെ സ്പീഡിലാണ് യാത്ര ചെയ്യാറ് ഇത്ര സമയത്തിനുള്ളില് എത്തണം എന്നൊക്കെയുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് ബസ്സുകള് തമ്മില് മത്സര ഓട്ടങ്ങള് സാധാരണ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ കാണുന്ന അപകടങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ധാരാളം അപകടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒരു ഈ ബസിന്റെ കൂടെ തന്നെയായിരിക്കും പല തരത്തിലുള്ള ബൈക്കുകളും അപകടത്തിലൊക്കെ പെടുകയും കുട്ടികളും ചെറുപ്രായത്തിലുള്ള യുവാക്കളൊക്കെ വളരെ മത്സര ഓട്ടത്തിൻ്റെ ഭാഗമായിട്ട് ബൈക്കുകളില് ഉള്ള ഓരോ അഭ്യാസ പ പ്രകടനങ്ങൾ ഒക്കെ നമുക്ക് ഈ റോഡില് കാണാൻ കഴിയും ഇതിനെ കുറിച്ച് അവിസ്മരണീയമായതെന്ന് വെച്ചാല് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് തോന്നുമ്പോൾ ഗതാഗതത്തിൽ ഒക്കെ നിർത്താൻ കഴിയും പക്ഷേ ജലം റെയില് എന്നും വാ ഈ വാ വായൂ എന്നൊക്കെ പറയുന്നത് അങ്ങനെ അല്ല ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു വഴിയരിക് കണ്ടാല് നമുക്ക് അവിടെ നിർത്താൻ പറ്റും പക്ഷേ വാക്കിയുള്ളതിനൊന്നും നമുക്ക് ആ ഒരു സൗകര്യമില്ല അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് പോകാം വേറെ നമുക്ക് നമുക്ക് ഇഷ് ഇഷ്ടമുള്ള വാഹനം സെലക്ട് ചെയ്യാം പക്ഷേ ഇപ്പോൾ നമ്മള് ട്രെയിനാണെങ്കിൽ ട്രെയിൻ എന്നുള്ളൊരു പബ്ലിക് ആയിട്ടുള്ളൊരു ഇത് മാത്രമെ ഉള്ളു പക്ഷേ നമുക്ക് എന്താ റോഡിൽ അങ്ങനെയല്ല ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനങ്ങള് നമ്മുടെ വാഹനങ്ങള് ഓട്ടോ ബസ് പലതരത്തിലുള്ള സാധ്യതകള് നമുക്കവിടെ തുറന്നു തരുന്നുണ്ട് നിന്നെക്കുറിച്ചായാലും ആവിശ്മരണീയമെന്ന് പറയുന്നുണ്ടെങ്കിൽ വളരെ റെ റെയിറ്റ് കുറവാണ് ചെ ചു ചുരുങ്ങിയ പൈസയ്ക്ക് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഒരു ഇപ്പോൾ ബസ്സില് നമുക്കൊരു പോകുവാണെന്നുണ്ടെങ്കില് കുറെ ദൂരം വരെ ഒരു അമ്പത് രൂപേന്റെ ഉള്ളിലൊക്കെ നമുക്ക് പോകാൻ കഴിയും പെട്ടെന്ന് തന്നെ എത്താറുണ്ട് പിന്നെ ബ്ലോക്കുകള് ഉണ്ടാവുമ്പോഴേ ഉള്ളു കുറച്ചെങ്കിലും പ്രശ്നം എന്ന് നമ്മള് പറയുക ഇപ്പോൾ എവിടെയേലും കുടുങ്ങി കിടക്കുക ഒക്കെയാകുമ്പം വളരെ ബുദ്ധിമുട്ടാണ് കുറെ നേരം മണിക്കൂറുകളോളം ബ്ലോക്കിൽ പെടേണ്ടതായിട്ട് വരും ചിലപ്പോൾ നമ്മള് ഒരു അര മണിക്കൂറുകൊണ്ട് എത്തേണ്ടതൊക്കെ ബ്ലോക്കിൻ്റെ ഒരു കാരണം കൊണ്ട് ചിലപ്പം ഒരു രണ്ട് രണ്ടര മണിക്കൂറൊക്കെ വൈകാൻ സാധ്യതയുണ്ട് ഈ ബ്ലോക്കില്ലാന്ന് ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ ഗതാഗതം വളരെ അവിസ്മരണീയമാണ് ഇപ്പോൾ റോഡ് സൈഡിൽ ഇപ്പോ കരിമ്പിൻ ജൂസും ഉപ്പിലിട്ട മാങ്ങാ അങ്ങനത്തെ പല പല കച്ചവടങ്ങളുണ്ട് ചെറിയ ചെറിയ ചട്ടി വില്പന പാവ കച്ചവടം തുണി പല കച്ചവടത്തിനുള്ള സാധ്യതകൾ നമുക്ക് തരുന്നുണ്ട് നമുക്ക് റെസ്റ്റ് എടുത്തൊക്കെ പോകാൻ പറ്റുന്ന രീതിക്കും വളരെ കൺവീനിയെന്റ ആണ് നമുക്ക് സാധാരണക്കാർക്ക് ഇത്തരം യാത്ര